ഇപ്പം നമ്മുടെ യുവാക്കളൊന്നും തൊഴിൽ കേരളത്തിൽ നോക്കാതെ വിദേശ രാജ്യങ്ങളാണ് കൂടുതൽ പേരും നോക്കുന്നത് എല്ലാവരും മെഡിക്കൽ ഫീൾഡിലോട്ട് ഇപ്പോളെറങ്ങാണ് ഇപ്പം മെഡിക്കൽ ഫീൽഡില് കൂടുതലവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ചിന്താഗതിയില് എല്ലാരും മെഡിക്കൽ ഫീൾഡിലോട്ടാണ് പോകുന്നത് അപ്പം പലരും ചിന്തിക്കുന്നില്ല വേറെ തൊഴിലവസരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് സർക്കാരിൻ്റെ കീഴിൽ തന്നെ പല തൊഴിലവസരങ്ങളുണ്ടെങ്കിൽ തന്നെയും അവരതിലോട്ടൊന്നു ഇറങ്ങാതെ അവർ വിദേശരാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനാണ് കൂടുതൽ പേരും ശ്രമിക്കുന്നത് പിന്നീടാണെങ്കിൽ ഈ തൊഴിലവസരങ്ങൾ നമ്മുടെ സർക്കാരിനുള്ളിൽ തന്നെ തെറ്റൊണ്ട് പി എസ് സി ലിസ്റ്റിൽ റാങ്കിൽ വന്നിട്ടും പലർക്കും ജോലി കിട്ടുന്നില്ല ഇപ്പം തങ്ങൾ പഠിച്ചതിന് ഫലമില്ല എന്നുള്ള ചിന്താഗതിയിലാണ് പലരും ഇവിടം വിട്ട് വിദേശരാജ്യങ്ങളിൽ പോയി വിദേശരാജ്യങ്ങളിൽ ഇപ്പോൾ തൊഴിലവസരങ്ങൾ കുറഞ്ഞു കൊണ്ട് വരികയാണ് കാരണം കേരളത്തിലുള്ള പലരും എന്താണ് യുവാക്കളെല്ലാം വിദേശരാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ത് പോപുലേഷനെയാണിപ്പം കുറഞ്ഞ് പോയിരിക്കുകയാണ് യുവാക്കളുടെ എണ്ണം കുറഞ്ഞു കാര്യം എല്ലാവരും കേരളത്തെ വിട്ട് വിദേശരാജ്യങ്ങളിൽ പോയി അവർക്ക് വേണ്ട ജോലി സാധ്യതകൾ ചെയ്ത് എന്താണ് പലരും പല വിഭാങ്ങളിൽ നിന്നുള്ള തിരക്കിലാണ് പിന്നീട് കേരളത്തിലിപ്പോൾ ജോലി സാധ്യത വളരെ കൂടുതലാണ് അതൊന്നുമാരും ചിന്തിക്കുന്നില്ല ഇപ്പം നമ്മൾക്കറിയാത്ത പല ജോലികളും ഇപ്പോൾ ഉണ്ട് ഇപ്പം പല ജോലികളുണ്ട് ഇപ്പം തന്നെ നമ്മുടെ എന്താണ് കേരള സർക്കാരിൻ്റെയിൽ പല വിധ ജോലി ഇതകൾ വരുന്നുണ്ടെങ്കിലും തൻ്റെ എന്താ പറയുക അന്തസ്സിന് പറ്റിയ ജോലി ആണോന്നെ നോക്കത്തൊള്ളു ഇപ്പം സർക്കാർ ജോലി ഒന്നും ആരും പിന്നെ എന്താണ് ആള് ഗൾഫിലാണോ വിദേശത്താണോന്നാണ് പലരും ചിന്തിക്കുന്നത് ആണെങ്കിൽ ജോലി കിട്ടും നമ്മുടെ യുവാക്കളുടെ ചിന്താഗതിയാണ് പല ഈ തെറ്റിദ്ധാരണകൾക്കും കാരണം ഇപ്പം ജോലി സാധ്യതകളുടെ എണ്ണം കുറവാണ് ഇപ്പം എല്ലാവർക്കും ഭയങ്കര വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് അപ്പം കൂടുതലറിവുള്ളവന് കുറെ ജോലി കിട്ടും പക്ഷെ എല്ലാവരുടേയും ചിന്താഗതി പണമുള്ളവനാണ് കൂടുതൽ ജോലികൾ എന്നാൽ പക്ഷെ അങ്ങനല്ല എന്താണ് അവനവൻ്റെ അറിവിന് അനുസരിച്ചുള്ള ജോലിയാണിപ്പം എല്ലാവർക്കും കിട്ടുന്നത്